വർഷങ്ങളായിട്ടുള്ള ഫോട്ടോഗ്രഫിയില് എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഴയ ക്യാമറകളെ വച്ച് ഇപ്പോഴുള്ള ഇൻ ഇപ്പോഴുള്ള ടെക്നോളജിയിൽ മാറ്റം വന്നതു കൊണ്ട് പണ്ടത്തെ ഉള്ള ഫില്മിങ് ക്യാമറ അല്ലെങ്കിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ക്യാമറകളെല്ലാം ഇപ്പോൾ മാറി ഇപ്പോൾ ജസ്റ്റ് മൊബൈലില് വരെ ഏറ്റവും ചെറിയ മൈക്രോ ക്യാമറകൾ ഉള്ളപ്പോൾ പിന്നെ വേറെ ബെസ്റ്റ് ഇപ്പോൾ സാധാ വീഡിയോ ക്യാമറ കല്യാണ ആൽബം ചെയ്യുന്ന കാമറകളിൽ എടുക്കുന്നതിൻ്റെ അപ്പുറം നല്ല പോലെ നമുക്ക് മൊബൈൽ ക്യാമറകളിൽ എടുക്കാൻ ഉള്ള വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോളിപ്പോൾ ഒര് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പണ്ട് അങ്ങനെ അല്ല പണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഒരിതായിരുന്നു പണ്ടത്തെ ക്യാമറകളെ വച്ച് നോക്കുമ്പോൾ ഇപ്പഴത്തെ ക്യാമറകള് എത്രയോ ഏറെ ഡെവലപ്പായെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കൻ പറ്റുന്നതാണ് മൊബൈൽ ക്യാമറകള് തന്നെ മതി ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പണ്ടത്തെ പോലെ സ്റ്റുഡിയോയില് പോയി ഇപ്പം രണ്ടു ഭാഗത്തു നിന്നും ലൈറ്റ് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒന്നുമില്ല ജസ്റ്റ് മൊബൈല് ഓണാക്കുക ജസ്റ്റ് ആ രാത്രിയാണ് ഫോട്ടോയെടുക്കുന്നേന്ന് വച്ചച്ച് മൊബൈലിൽ തന്നെ ഫ്ലാഷ് വരണ ഓപ്ഷൻ ഓൺ ആണ് ഫ്ലാഷ് ഓൺ ആവും ഇവിടെ ലൈറ്റ് ഓണാവും അപ്പോൾ പിന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും നേരത്തെ ഉള്ള ഇതിനെ വച്ച് നല്ല മാറ്റമാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ എല്ലാം വന്നിരിക്കുന്നത് പഴയ ക്യാമറകളെ വച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള മൊബൈൽ ക്യാമറകൾ മ് ടോപ് ലെവലാണ് കാരണം ഒരു ഐഫോണായിക്കോട്ടെ ഇല്ലെങ്കിൽ സാധാ ഇപ്പോൾ തന്നെ വേറെ ഇപ്പോൾ പുതിയ മോഡല് സാംസങ് എസ് ട്വന്റിത്രീ അൾട്രാ നമക്ക് ഒ ഒരു കിലോമീറ്ററിന് ഉള്ളില് അങ്ങനെ എന്തോ അപ്പറത്തു നിൽക്കുന്ന ആളെ വരെ സ് സൂമ് ചെയ്ത് നമുക്കാളെ കാണാൻ തരത്തിലുള്ള ക്യാമറ ടെക്നോളജി ഫോണുകളിൽ തന്നെ വന്നു അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വച്ചു നോക്കുമ്പോൾ പഴയതെല്ലാം നോക്കുമ്പോ വളരെ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടു തന്നെ നല്ല വ്യത്യാസങ്ങളുണ്ട് അത് ഇപ്പോളുള്ള ക്യാമറകള് ഇപ്പോൾ മൊബൈൽ ക്യാമറ വച്ച് ഫോട്ടോയെടുക്കാൻ വളരെ എളുപ്പമാണ് പണ്ടത്തേനേം വച്ചിട്ട് വളരെ സിംപിളായൊരു കൊച്ചു കുട്ടിക്കു പോലും ഫോട്ടോയെടുക്കാൻ പാകത്തിലാണ് ഇപ്പോളുള്ള അതിൻ്റെ സോഫ്റ്റ് വെയർ ക്രമീകരണങ്ങളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം